സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു ഗ്രൂപ്പിനൊപ്പം ഓടുകയോ റണ്ണിങ് ക്ലബിൽ ചേരുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവം എനിക്ക് ഷെയറ് ചെയ്യാൻ പറ്റില്ല കാരണം അത്തരത്തിൽ ഒരു അനുഭവമില്ല എന്നുള്ളതാണ് പക്ഷേ അതിന് ആഗ്രഹമുണ്ടോ വച്ചാൽ സ്വാഭാവികമായിട്ട് ആഗ്രഹമുണ്ട് അത് ഏതൊരാൾ ആഗ്രഹിക്കും ഞാൻ പറയുമ്പോൾ മുക്കാൽ മനുഷ്യന്മാരും അല്ല ഒരു ഭൂരിപക്ഷം മനുഷ്യന്മാർക്ക് അതിന് ആഗ്രഹം ഉണ്ടാകും ഇങ്ങനൊരു റണ്ണിങ് ക്ലബിൽ ചേരണം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഓടണം അങ്ങനെയൊക്കെ അഗ്രഹമുണ്ടാകും ഇപ്പോൾ സിയാൻ്റെ ഗ്രാൻഡപ്പ ഗ്രാൻഡ് ഫാദർ ഒരു വൺ വീക്കായിട്ട് ഒരു ജ യോഗ ക്ലബിൽ ചേർന്നിട്ടുണ്ട് ഹീ ഈസ് ഓൾഡ് ഒരു മൊർ ദാൻ സിക്സ്റ്റി ഇയേർസ് ഉണ്ടാകും അത്രയും വയസ്സുള്ള എൻ്റെ ഗ്രാൻപ്പ ചേർന്നിട്ടുണ്ട് അതുപോലെ റണ്ണിങ് ടീമിലൊക്കെ ചേരാൻ ഏത് ടീമിനൊപ്പം ചേരാൻ എന്ത് നമുക്ക് ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളതാണ് അവിടെ റണ്ണിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ആഗ്രഹിക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ലൈഫ് ഹാപ്പിയായിട്ട് വെക്കണമെന്ന് ഉണ്ടെങ്കിൽ ലൈഫ് ഹാപ്പി ആകുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മളൊക്കെ ഹാപ്പി ആകണം അല്ലാതെ നമ്മൾ ഇങ്ങനെ കുറേ ജീവിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഡിപ്രഷനിലായിട്ട് സങ്കടത്തിലായിട്ട് ഓരോ ദിവസം നമുക്ക് മനുഷ്യന്മാർക്ക് എന്തായാലും ടെൻഷന ഉണ്ടാകും നിരവധി ടെൻഷനുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ന് ഇങ്ങനെ താങ്ങി പിടിച്ച് നടക്കാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു സൊല്യൂഷന് വഴി ഇട്ട് വഴി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെത്തേഡ് വഴി നമുക്ക് ആ ഒരു ടെൻഷന കൺണ്ടട്രോള് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് മറക്കാനും സാധിക്കണം ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ആരും സ്ട്രെസ് ബെസ്റ് ബെസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് സ്ട്രെസ് ബെസ്റ്റർ ആയിട്ട് അതുപോലെ ആ ടെൻഷൻ കില്ലർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ക്ലബിലുള്ള സമയത്ത് നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെക്കുറിച്ചോ അല്ലെങ്കിൽ ടെൻഷൻസിനെക്കുറിച്ചോ നമ്മുടെ മറ്റ് ചിന്തകളൊന്നും കടന്ന് വരില്ല നമുക്ക് അപ്പം ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ടീമിനൊപ്പം ഫുള്ളായിട്ട് എൻഗേജിങ് ആയിട്ട് നമ്മൾ ആക്ടിവിറ്റീസൽ ഏർപ്പെടുക എന്നുള്ള ഒരു സംഭവമാണ് നടക്കുന്നത് അപ്പം അത് നടക്കുമ്പോൾ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഔർ മെൻറൽ ഹെൽത്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും നമുക്ക് ഒരു ഹാപ്പിനസ്സ് കിട്ടുകയാണ് അവിടെ ഹാപ്പിനെസ്സ് അതുപോലെ സന്തോഷം ഒക്കെ വരുകയാണ് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഹാപ്പി ആകും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഒരാൾ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ ആയുസ്സ് കൂടാൻ വരെ സാധ്യതയുണ്ട് കാരണം ഈ ടെൻഷൻ അടിച്ച് കഴിഞ്ഞ് വെറുതെ ടെൻഷൻ അടിച്ച് അതിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി അപ്പം നമ്മുടെ ആയുസ്സ് വരെ കുറയാനുള്ള സാധ്യതയുണ്ട് ടെൻഷന അടിച്ച് പറഞ്ഞാൽ അത്രയും റിസ്ക്കാണ് അതിൻ്റെ എഫക്റ്റുകൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും ബാധിക്കും അത് അത്രത്തോളം സീരിയസായിട്ടുള്ള വിഷയമാണ് അപ്പം ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ ആ ക്ലബിനപ്പ റണ് ചെയ്യുക എന്നുള്ളത് പോരാത്തതിന് ഫിസിക്കൽ കണ്ടീഷന മെച്ചപ്പെടും ഫിസിക്കലായിട്ട് നമുക്ക് ശരീരം നോക്കാം അതുപോലെ മെൻ്റലായിട്ട് നമുക്കൊരു ഹെൽത്ത് കണ്ടെത്താം അങ്ങനെ എല്ലാ രീതിയിലും വളരെ ഒരു ഉപകാരമുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള റണ്ണിങ് ക്ലബ്ബ് എന്നുള്ളത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രശ്നം എന്താണ് സമയം ഇല്ലാന്നുള്ളത് അതുപോലെ തന്നെ എൻ്റെ പ്രശ്നം അപ്പം അതിന് സമയം കണ്ടെത്തിയിട്ട് അതിലേക്ക് ചേരണം അത് മുതലെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം